എൻ്റെ സ്ഥലമെന്നുപറയുന്നത് ഒരു കുട്ടനാട് ഏരിയയാണ് അപ്പോള് എൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേക ഒരു കലയായിട്ട് എടുത്തുപറയാനെനിക്കൊന്നുമില്ല അപ്പോള് കുട്ടനാട് ഏരിയ നമുക്കറിയാം നമ്മൾ നോക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് കടന്നുവരുന്നത് ഈ വള്ളംകളി വഞ്ചിപ്പാട്ട് അങ്ങനുള്ള കാര്യമാണ് അപ്പോള് എനിക്ക് നാ കണ്ടനുഭവമുള്ളതും ആയിട്ടുള്ളതൊക്കെ അങ്ങനെയുള്ള ഒരു കലയാണീ വള്ളംകളി വഞ്ചിപ്പാട്ടെന്നൊക്കെ പറയുന്നത് അപ്പോള് ഇത് സിനിമകളിലൊക്കെയാണെങ്കിലും നമ്മള് ഉപയോഗിച്ച സംഭവങ്ങൾ നമുക്കൊത്തിരി അറിയാന്പറ്റും ഈ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്നുപറഞ്ഞ സിനിമ അതില് കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ആ സിനിമയില് നമ്മളാ സിനിമയില് ഉടനീളം നമ്മള് കാണുന്നതാണ് വൻ എന്താ പറയുക വള്ള വള്ളമായിട്ടുള്ള ആ സീനൊക്കെ നമ്മള് ഒത്തിരി കാണുന്നതു തന്നെയാണ് അതുപോലത്തൊരു സിനിമകളിലൊക്കെ ഈ വാ വള്ളംകളി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് കാണുന്നതാണ് പിന്നേ പിന്നെ ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമ്മള് കാണുന്നതാണീ വള്ളംകളിയും വഞ്ചിപ്പാട്ട് അത് വച്ചിട്ടുള്ള പരസ്യങ്ങളൊക്കെ നമ്മളൊത്തിരി കാണുന്നതാണ് പിന്നെ

നമ്മള് ഓ ഓണമെന്നൊക്കെ പറയുമ്പോള് നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടിവരുന്നത് ഈ വള്ളംകളിയും വഞ്ചിപ്പാട്ടുമൊക്കെ തന്നെയല്ലെ അപ്പോഴതൊരു കുട്ടനാടിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതായിട്ട് നമുക്ക് പെട്ടെന്ന് മനസിലോട്ട് വരുന്നൊരു സംഭവമാണ് അപ്പോള് അല്ലാതെ എൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേക ഒരു കലയായിട്ടെടുത്തുപറയാൻ ഞങ്ങള്ക്കൊന്നുമില്ല അപ്പോഴതുകൊണ്ടാണ് ഇത് പറഞ്ഞത്